ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ ആ ഒരു പതിനഞ്ച് പേർക്കുള്ളത് ആ ആ ഓക്കേ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഫോർക് സ്പൂണും കൂടി വയ്ക്കുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അതായത് നമ്മൾ പുതിയതായിട്ട് വാടക വീട്ടിലേക്ക് വന്നതാണേ അപ്പോൾ ഞങ്ങളുടെ സാധങ്ങൾ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല ആ അതെ അതെ അതെ കോഴിക്കോട് സിറ്റിൻ്റെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോകണം ആ അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ വീട്ടിൽ പ്ലേറ്റ് സ്പൂണും കാര്യങ്ങളൊന്നും ഇല്ല അതാ നമ്മൾ ഓർഡർ ചെയ്തത് ആ അപ്പോൾ ഫുഡ് ഫുഡ് കഴിക്കാൻ ഉള്ളത് ഒന്നുമില്ല പ്ലേറ്റില്ല സ്പൂണില്ല പിന്നെ ഫോർകില്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ കുറച്ച് പിന്നെ നിങ്ങള് കൊടുത്ത് വിടുവോ ആ കൊടുത്ത് വിടുവാണെങ്കിൽ ഉപകാരം ആയിരുന്നു ആ അങ്ങനെയാണെങ്കിൽ ഇല്ലല്ലൊ നിങ്ങൾ ഫുഡ് കൊടുത്ത് വിട്ടിട്ടില്ലലോ ആ അങ്ങനെയാണെങ്കില് അതിൻ്റെ കൂടെ പിന്നെ ഇതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വിടണം കേട്ടോ നമ്മള് പൈസ എത്രയാണ് എന്ന് വെച്ചിട്ടുണ്ടേൽ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യാം ആ ഓക്കേ താങ്ക് യൂ